എനിക്ക് മലയാളത്തിലേറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കെന്ന് പറഞ്ഞാൽ വിശ്വാസം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മലയാളത്തിന് ഞാൻ മലയാള ഭാഷയെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്

ഒരുപാട് അതില് പ്രയോഗങ്ങളുണ്ട് കാരണം നമ്മളെന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് വിശ്വാസത്തോടുകൂടി അല്ല ചെയ്യുന്നേങ്കിൽ അതെപ്പഴാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടേ തന്നിട്ടുള്ളു പിന്നെ നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോൾ അത് വിശ്വാസയോഗ്യമാണോ എന്ന് തീരുമാനം എടുത്തിട്ട് മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ നമുക്കതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് വരാറ് പിന്നേന്ന് വെച്ചാൽ മലയാളഭാഷ സംസാരിക്കുന്ന ഒരാളായതിനാല് എനിക്കാ വിശ്വാസമെന്നുള്ള വാക്കിനെ ഒരുപാട് പ്രസക്തി ഞാൻ കൊടുക്കാറുമുണ്ട് കൊടുത്തിട്ടുമുണ്ട് ഇനി അങ്ങോട്ടും കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പിന്നേ മലയാളം സംസാരിക്കുന്നതിന് കൊണ്ട് എനിക്കൊരുപാട് ഗുണങ്ങളേ ഉണ്ടായിട്ടുള്ളൂ ഇന്ന് വരെ എൻ്റെ ലൈഫില് അല്ലാതെ എനിക്ക് മലയാളം കൊണ്ട് ഒരു ഉപദ്രവമോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അതിന് ഞാനീ മലയാളം സംസാരിക്കുന്നത് കൊണ്ട് ഞാനും ഒരുപാട് മീറ്റിംഗുകളായിക്കോട്ടെ ഇല്ലെങ്കിൽ സ്റ്റേജുകളായിക്കോട്ടെ അതുകൊണ്ട് ഞാനൊരുപാട് എന്താ പറയുക അഭിമാനം തോന്നുന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫില് ഒരുപാട് ടൈമില്